ഞാൻ കഴിഞ്ഞ മാസം ഒരു സ്മാർട്ട് വാച്ച് മേടിച്ചിരുന്നു ആമസോൺ വന്നിട്ട് ആമസോണിൽ നിന്ന് മേടിച്ച സ്മാർട്ട് വാച്ചിന് വില വന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരുന്നു പക്ഷെ എനിക്കത് കറക്ട് വാല്യബിൾ ആയിരുന്നു കാരണം എന്താ ചോദിച്ചാൽ അതിൻ്റെ പെർഫോമൻസ് അത്രയും നല്ലതായിരുന്നു എൻ്റെ സ്പോർട്സ് ജീവിതത്തിനു വേണ്ടിയിട്ട് ഉള്ള എല്ലാ ഫിസിക്കൽ ആയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും അതിലുണ്ട് നമുക്ക് ബി പി നമ്മളെ വോളിബോളിൻ്റെ അക്കൗണ്ടിംഗ് അതൊക്കെ കറക്ട് സെൻസർ വൈസ് നേരാം വണ്ണം നടത്തുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനം പിന്നെ അതിൻ്റെ കളർ ഗ്രേഡിങ്ങാണെങ്കിലും നല്ല സ്ട്രാപ്പാണ് നല്ല ഡിസ്പ്ലേ ആണ് ഏകദേശം ഒരു അത്യാവശ്യം കാണാൻ പറ്റുന്ന വലുപ്പത്തിലുള്ള ഡിസ്പ്ലേ ആണ് ആ സ്മാർട്ട് വാച്ചിലുള്ളത് അതൊക്കെ നല്ലൊരു പോസിറ്റീവ് കാര്യങ്ങളായിരുന്നു